ഇ ഇന്നത്തെ കാലത്തു നമ്മൾ പത്രമാസിക വാർത്താ ചാനൽ അങ്ങനെ സൊ അങ്ങനെ പലപല സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ ഓരോ വാർത്തകൾ കാര്യങ്ങൾ മാത്രം വാർത്തകളൊക്കെ നമ്മളറിയുന്നത് അപ്പം നമുക്ക് കൂടുതൽ നമ്മൾ ഇപ്പോൾ പത്രങ്ങളിലൂടെ കുറേ അറിവുകൾ കിട്ടാറുണ്ട് പിന്നെ ന്യൂസ് ചാനൽ വെക്കുമ്പോൾത്തന്നെ ന്യൂസ് ചാനലിൽ നിന്നു നമുക്കു പെട്ടെന്നുള്ള ട്വൻറ്റി ഫോർ ഹവർ ന്യൂസ് അപ് അപ് റ്റു ഡേറ്റ് അഞ്ചുമണി വാർത്ത നാലുമണി വാർത്ത അങ്ങനെ ഓരോ ടൈം ഉണ്ട് അപ്പം ന്യൂസ് ചാനൽ അപ്പോൾ ആ സമയത്ത് നമുക്ക് ന്യൂസുകൾ അപ് റ്റു ഡേറ്റ് ആയിട്ട് നമുക്കു കാണാൻ പറ്റും അപ്പം ഇന്നു നടക്കുന്ന കാര്യങ്ങൾ നാളത്തെ പത്രത്തിൽ വരുമ്പോഴത്തേക്കു നമ്മൾ അത് ഓൾറെഡി നമ്മളത് പത്ര ന്യൂസ് മീഡിയ ചാനലിൽ കൂടി നമുക്കതു കേട്ടു കഴിഞ്ഞ് ഉള്ള അറിവുകളാണ് പിന്നെ മരണവാർത്ത അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പിറ്റേദിവസത്തെ ഇതിനതാണ് നമ്മൾ പ അറിയുന്നത് പത്രത്തിലാണ് നമ്മളറിയുന്നത്